ആ ഇത് സൂപ്പർ മാർക്കറ്റല്ലേ ആ ഓക്കെ ആ മാഡം നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബൾക്ക് ആയിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിക്കുന്നത് ആ ഓ അപ്പോൾ നമ്മൾ വയനാട്ടിലാണ്

അപ്പോൾ നമുക്ക് ഇല്ല നമ്മൾ ആ വന്ന് കളക്റ്റ് ചെയ്തുകൊളളാം പ്രശ്നം ഇല്ല അപ്പോൾ നമുക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള സാധനം എടുക്കാനാണ് അപ്പം ഒരു ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള പ്രോഗ്രാം ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വെജ് മീൽസൊക്കെ എങ്ങനെ

വൺ കെ ജിയിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ക്കൗണ്ടിൽ കിട്ടൂള്ളൂ ആ നമുക്ക് കുറച്ച് ഹ്യൂജ് ആയിട്ട് തന്നെ വേണം നമുക്ക് ഇപ്പോൾ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനും മാത്രം സാധനം അവിടെ ഉണ്ടാകുമോ

ആ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകുമോ എത്രയാണ് സാധനം വരുന്നതിൽ അധികം ഉണ്ടാവില്ലേ

അല്ല നമുക്ക് ഈ വീക്കെൻ്റ് ആണ് വേണ്ടത് നമുക്ക് വെജിറ്റബിൾസ് ആൾമോസ്റ്റ് എല്ലാം തന്നെ വേണം ഓക്കെ ആ റൈസൊക്കെ ഉണ്ടല്ലേ നമുക്ക് ബിരിയാണി റൈസായിരിക്കും വേണ്ടി വരിക ആ ഓക്കെ ആ ഓക്കെ മാഡം ആ അപ്പോൾ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡേറ്റിന് എത്തുമായിരിക്കുമല്ലേ സാധനം ഉണ്ടാകുമായിരിക്കും അല്ലേ ആ ഓക്കെ നമ്മൾ അവിടെ വന്നിട്ട് മാഡത്തിനെ കോൺടാക്ട് ചെയ്യണോ അതോ ഷോപ്പിൽ പറഞ്ഞാൽ മതിയാവുമോ നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എങ്ങനെ ആ ഓക്കെ അവിടെ പറഞ്ഞാൽ മതിയായിരിക്കും അല്ലേ

ആ ഓക്കെ മാഡം അപ്പോൾ മതി എൻ്റെ എൻ്റെ പേര് ബാബു എന്നാണ് സ്ഥലം ചെറ്റപ്പാലം ആ അഡ്രസ്സ് എന്തെങ്കിലും വേണ്ടി വരുമോ ആ നമ്പർ ഇതു തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും പേയ്മെൻ്റ് അഡ്വാൻസ് ചെയ്തു വെക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ

ക്യാഷ് കൊടുത്താൽ മതി അല്ലേ ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ വരുന്നതിൻ്റെ അന്ന് ഞാൻ മാഡത്തിനെ കോൺടാക്ട് ചെയ്തുകൊളളാം ഓക്കെ മാഡം